എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഋതു ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വസന്തകാലമാണ് ഇഷ്ടം പിന്നെ ഋതുക്കൾ ഒരു ഒരുപാടുണ്ട് ശ നാലെണ്ണമുണ്ട് ശൈത്യകാലം വസന്തകാലം അങ്ങനെയുള്ള പിന്നെ നാലെണ്ണങ്ങൾ നാല് ഋതുക്കളുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം വസന്തകാലമാണ് വസന്തകാലത്താണ് നമുക്ക് പൂക്കൾ കാര്യങ്ങളൊക്കെ നല്ലവൺനം ഉണ്ടാകാറ് അതായത് ചെറിയ മഴ കാര്യങ്ങളൊക്കെയായിട്ട് മഴ നനഞ്ഞു കൊണ്ട് അതായത് ഒരുപാട് പൂക്കൾ കാര്യങ്ങളൊക്കെയുണ്ടാകും പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ വലിയ രസമാണ് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് മഞ്ഞ് കാര്യങ്ങളൊക്കെയുണ്ടാകും അതായത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ അതായത് ഡിസംബർ ആ ഒരു ടൈമിലായിരിക്കും നമുക്ക് ഈ കാലം അനുഭവപ്പെടാറ് അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഞ്ഞ് കാര്യങ്ങളൊക്കെയുണ്ടാകും മഞ്ഞ് അതായത് രാവിലെ എണീറ്റപാടെ മഞ്ഞ് ഒരു പത്തു പതിനൊന്ന് മണി വരെ നമുക്ക് ആ തണുപ്പ് നല്ലവണ്ണം കിട്ടും പിന്നെ അതിന് ശേഷമായിരിക്കും നമുക്ക് ചൂട് അതുപോലെത്തന്നെ വൈകുന്നേരം ഒരു അഞ്ചരയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും വീണ്ടും ആ തണുപ്പ് അനുഭവപ്പെടും അതൊക്കെ നല്ലൊരു ഫീലിങ്ങാണ് കാരണം നമുക്ക് നല്ല ചൂടുള്ള സമയത്ത് നല്ല മഞ്ഞ് മഞ്ഞ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലമുകളിൽ ആ ഒരു ടൈം ഇതിലൊക്കെയാണെങ്കിൽ നമുക്കിങ്ങനെ മഞ്ഞിങ്ങനെ മൂടി കാണാൻതന്നെ വലിയ ഒരു രസമാണ് അത് കണ്ടിരിക്കാൻ തന്നെ നമുക്ക് നല്ല ഒരു കണ്ണിനോരു കുളിർമ തന്നെയാണ്